എന്റെ പ്രോഡക്ട് ബെഡ്ഷീറ്റ് ആയിരുന്നു നല്ല പ്രൊഡക്ടാണ് നല്ല കളർഫുൾ ആയിരുന്നു നല്ല ഡിസൈൻ ആണ് നല്ല ലെങ്ങ്ത്ത് ഉണ്ട് വലിയത് കുറച്ച് നല്ല ലെങ്ങ്ത്തുള്ള ബെഡ്ഷീറ്റ് ആയിരുന്നു നല്ല കളർഫുൾ ആണ് അങ്ങനെ കഴുകിയാലൊന്നും കളർ പോവാറില്ല നല്ല ക്വാളിറ്റി ഉള്ള തുണിയൊക്കെ ആണ് കോട്ടൺ ആണ് പ്യുവർ കോട്ടൺ ആണ്